ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഒരു പള്ളി ഉണ്ട് പള്ളിയില് ഒരു കുരിശുമല ഉണ്ട് ആ കുരിശുമല ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഇടയ്ക്ക് കയറാറുണ്ട് കാരണം അതിൻ്റെ മേലെ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് അതുപോലെ അവിടെ ഒരു കുരിശ് ഉണ്ട് ക്രിസ്ത്യാനികളുടെ ഓരോ ആചാരപ്രകാരം ഏതോ ഒരു മാസം അവര് കുരിശുമായിട്ട് അതിൻ്റെ അതിൻ്റെ മേലേ കയറാറുണ്ട് എന്നിട്ട് അവിടെ വഴിപാടും പിന്നെ എന്തൊരു ആചാരങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തിരുനെല്ലി അമ്പലത്തിലും വിഷുവിനും ഓണത്തിനും ഒക്കെ ആഘോഷം ഉണ്ട് അതുപോലെ അവരെ അവിടെ ബലി ദർപ്പണത്തിന് കുറെ പേരു വരുന്നുണ്ട് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ അല്ലാണ്ടും കുറേപ്പേര് പോകുന്നുണ്ട് അവിടെ കാടിൻ്റെ ഉള്ളിലാണ് അ അമ്പലവും അപ്പോൾ അതിൻ്റെ ആനയും കടുവയും ഒക്കെ അവിടെ ഇറങ്ങാറുണ്ട് ആനയെ കാണാൻ ഒക്കെ കുറേപ്പേര് അത് പോകാറുണ്ട് ആ പോകുന്ന വഴിക്ക് അമ്പലത്തിലും കയറാറുണ്ട് ആൾക്കാര് പ്രാർത്ഥിച്ച് ഇറങ്ങാറുണ്ട് അതുപോലെ പള്ളി മറ്റേ കുരിശ് മലയിലും മറ്റേ പുലിയും ആനയും ഒക്കെ ഉള്ളതുകൊണ്ട് വിനോദ സഞ്ചാരികളുടെ എണ്ണം കൂടുതലാണ് പുലി അങ്ങനെ ഇല്ലെങ്കിലും ആന ഉണ്ട് അപ്പോൾ ആനയെ കാണാം നല്ല ടോപ്പിലാണ് അമ്പലം അപ്പോൾ ആ ഒരു ടോപ്പിലാണ് പള്ളി അപ്പോ അവിടെ കേറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിൻറ്റെ പകുതി വ്യൂ മൊത്തം അവിടെന്ന് കിട്ടും അതു കാണാനും കുറെപ്പേര് വരുന്നുണ്ട്